ഹലോ റോളക്സ് റസ്റ്റോറന്റ് അല്ലേ ഞാൻ നേരത്തെ അവിടുന്ന് ഒരു കുറച്ച് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ അത് തന്നെ അപ്പോൾ അത് വല്ലാണ്ട് പഴകിയ ഒരു ഭക്ഷണം ആണ് എനിക്ക് നിങ്ങൾ അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് അല്ല അത് വളരെ മോശമായിട്ടുള്ള ഒരു ഭക്ഷണം ഭയങ്കര മണവും സ്മെല്ലും ചിക്കൻ ഒക്കെ എന്താണ് പറയുക എന്തോ ഒരു വൃത്തികെട്ട ഒരു ഫുഡ് ആണ് നിങ്ങൾ എനിക്ക് തന്നത് ആ അതെ അതെ എന്താണ് പറയുക ഐ വൃത്തികെട്ട സ്മെൽ ഒക്കെ വരുന്നുണ്ടായിരുന്നു അല്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ ഇത് കംപ്ലൈയിൻ്റ് എന്തായാലും കൊടുക്കാൻ പോവാണ് അവിടുന്ന് നല്ല ഒരു ഭക്ഷണം ആണ് ഞാൻ ഇതിന് മുന്നേയൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് എനിക്ക് വളരെ മോശം ആയിട്ടുള്ള ഭക്ഷണം ആണ് നിങ്ങൾ കൊണ്ടു തന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര സ്മെല്ലും ഈ ചിക്കൻ ഒക്കെ വേവാണ്ട് ഉള്ളത് പോലെയും പിന്നെ പഴകിയ ചിക്കൻ ആണെന്ന് തോന്നുന്നു അല്ല അല്ല അല്ല പഴകിയ ചിക്കൻ ആണ് പിന്നെ രണ്ട് ദിവസം പഴക്കം ഉള്ള ഭക്ഷണം ആണ് തോന്നുന്നു എനിക്ക് തന്നത് നിങ്ങൾ അല്ല ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തോ ഒരു അതിന് അകത്തുനിന്ന് ഇങ്ങനെ പുഴുവൊക്കെ അരിക്കുന്നത് പോലെ ഞാൻ അതിൻ്റെ ഫന വേണമെങ്കിൽ ഫോട്ടോ ഇട്ടു തരാം അല്ല അല്ല മോശം ഭക്ഷണം ആണ് നിങ്ങൾ അയച്ച് തന്നത് ഇവിടെ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഫോട്ടോ ഇട്ട് തരാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരാം ഇല്ല ഇല്ല ഇല്ല അങ്ങനെ ഒന്നും അല്ല ഇത് എന്തായാലും ഭക്ഷണം മോശം ഭക്ഷണം ആണ് എനിക്ക് എന്ത് ആയാലും ഇത് കഴിക്കാൻ ഒന്നും എനിക്ക് എന്തായാലും പറ്റില്ല കാരണം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവൊന്നും ഇല്ലല്ലോ എന്തായാലും ഞാൻ കംപ്ലൈയിൻ്റ് ചെയ്യാൻ പോവാണ് ഞാനിത് ഇപ്പം കൊണ്ട് ഇതും കൊണ്ട് ഞാൻ ഇപ്പോൾ ഫുഡ് സ്ഫേറ്റിൻ്റെ ഓഫീസറിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കംപ്ലൈയിൻ്റ് ചെയ്യും എന്തായാലും കാരണം ഇതൊക്കെ കഴിച്ച് ഇപ്പോൾ എന്താണ് പറയുക ഇപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം വേറെ വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ മോശം ആണ് ആ മോശത്തിൻ്റെ അല്ല എന്ത് ആയാലും അത് നടക്കില്ലല്ലോ ഏയ് ഇല്ലില്ലില്ല എന്തായാലും ഞങ്ങൾ ഞാൻ എന്തായാലും കംപ്ലൈയിൻ്റ് ചെയ്യാൻ പോവാണ് വളരെ മോശം ആയിട്ടുള്ളൊരു ഭക്ഷണം ആണ് നിങ്ങൾ എന്തായാലും തന്നത് ഇത് വല്ലാണ്ട് ഇങ്ങ് എന്താണ് പറയുക മാ സ്മി ഭയങ്കര സ്മെല്ലും ചീഞ്ഞ ഒരു ഭക്ഷണോം ഇത്രയും വൃത്തികെട്ട ഒരു ഭക്ഷണം ഞാൻ ഇതിന് മുന്നെ കഴിച്ചിട്ടില്ല എന്തായാലും ഞാൻ എന്തായാലും കംപ്ലൈയിൻ്റ് കൊടുക്കാൻ പോവാണ്